പണ്ട് കാലങ്ങളില് ഇപ്പം ടാപ്പിൽ കൂടി വെള്ളം വീഴുക എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ഒരു ടാപ്പക്കെ ഉണ്ടാവുകയുള്ളു അപ്പം ആ സ്ഥലത്തിലെ ജനങ്ങൾ എല്ലാം കൂടി ഒത്ത് ചേർന്ന് നിന്ന് ക്യൂ ഒക്കെ നിന്ന് കുറെ ഒത്തിരി സമയം എടുത്തായിരുന്നു അവരൊക്കെ വെള്ളം വെള്ളം എടുത്തു കൊണ്ടിരുന്നത് പൊതുപൈപ്പുകൾ ആയിരുന്നു അന്ന് ആരുടെ വീട്ടിലും സ്വകാര്യമായിട്ട് പൈപ്പുകൾ ഒന്നും ഇല്ലായിരുന്നു ബട്ട് ഇന്ന് ഇന്നത്തെ കാലത്തേക്ക് വരുമ്പം എല്ലാവരുടെയും വീട്ടിൻ്റെ മുറ്റത്ത് പൈപ്പുകൾ അകത്ത് കൂടെ പൈപ്പ് വരുന്ന സിറ്റുവേഷൻ കാരണം നമ്മൾ ഒന്ന് തിരിച്ചാൽ വെള്ളം വരും അത് അങ്ങനത്തെ ഒരു ഇതിലേക്ക് ഭയങ്കര ഡെവലപ്പ് ആയിട്ട് കൊണ്ടിരിക്കയാണ് കാരണം പണ്ട് എന്തോ ഒരു സാഹചര്യം എന്നാൽ ഭയങ്കര ഒരു വ്യത്യാസമാണ് കാരണം പണ്ട് ലഭിച്ചിരുന്ന വെള്ളങ്ങള് ശുദ്ധമാണോ എന്ന് പൂർണ്ണമായിട്ടും പറയാൻ കഴിയില്ല ഇന്നത്തെ കാലത്ത് എന്ന് പറയാൻ ഭയങ്കര ഡെവലപ്പ് ആയിട്ട് ഇപ്പം കുഴൽ കിണറുകളിൽ നിന്നും കിണറുകളിൽ നിന്നും അല്ലാണ്ട് തന്നെ ഗവൺമെൻറ് വക ടാപ്പുകളിലൂടെ വെള്ളം ഏത് ഗവൺ വരുന്നത് ഗവൺമെൻറ് വക തന്നെ വരുന്ന വെള്ളങ്ങൾ ആണെങ്കിലും നല്ലോണം ബ്ലീച്ചിങ് പൗഡറുകൾ ഒക്കെ ഇട്ട് ശുദ്ധികരിച്ചായിരിക്കും ഈ വെള്ളവും കിട്ടുന്നത് സോ ഇപ്പഴത്തെ ഇപ്പഴത്തെ വെള്ളത്തിന് ഭയങ്കര സേഫ്റ്റിയുണ്ട് കാരണം മൊത്തമായിട്ട് അണുവിമുക്തമായിട്ടുള്ള വെള്ളമാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഒക്കെ